സൈബർ ഭീഷണി സോഷ്യൽ മീഡിയ ട്രോളിങ് അത് വലിയൊരു ഇതുതന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ട്രോളിങ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ശരിക്കും നമ്മുടെ ഓരോ വ്യക്തികളെ തന്നെ മാനസികമായിട്ട് തളർത്തുന്നൊരു പശ്ചാത്തലമാണ് ട്രോളിങ്ങിലൂടെ ആ ഒരു വ്യക്തി എന്താണ് പറയുന്നത് ചെയ്യുന്നെന്നുള്ളത് സമൂഹം മനസിലാക്കാതെ വേറെന്തൊക്കെയോ കാട്ടി കൂട്ട് കാട്ടിക്കൂട്ടി അയാളെ കളിയാക്കി കൊണ്ടിരിക്കുന്നത് ശരിക്കും അതിൻറ്റെ ഒക്കെ നല്ല വശങ്ങള് ചിന്തിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മള് പഠിക്കണം നമ്മളിങ്ങനെ ഒരാളെ സോഷ്യൽ മീഡിയാ ട്രോളി എന്തുകൊ എന്തിനാണ് മോശമായ രീതിയില് അയാളെ പ്രദർശിപ്പിക്കണ് അയാളെ കാണിക്കുന്നെന്നുള്ളൊരു ചിന്താഗതി നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാല് നമ്മള് അതിൽ നിന്നൊക്കെ പിന്മാറും ആ ഒരു രീതിയില് ചിന്തിക്കാനായിട്ട് നമ്മുടെ സമൂഹം മുന്നോട്ട് വരണം